ഗ്രാമീണ മേഖലയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം മെച്ചപ്പെടുത്തണമെങ്കിൽ സർക്കാര് തന്നെ മുൻകൈ എടുക്കണം കൂടുതലായിട്ടും സർക്കാർ മുൻകൈ എടുത്തിട്ടില്ല എന്നു നമുക്ക് പറയാം ഇപ്പോൾ യു പി സ്കൂൾ എൽ പി സ്കൂളുകളൊക്കെ പല ഗ്രാമത്തിലും ഉണ്ട് അവിടെ കുട്ടികളെയൊന്നും വിടാത്തതിൻ്റെ കാരണം അവിടെ മര്യാദയ്ക്ക് പഠിപ്പിക്കുകയില്ല എന്നാണ് രക്ഷിതാക്കൾ പരാതിപ്പെടുക കാരണമെന്തന്നാൽ അത് ഒരു പക്ഷെ സത്യമായിരിക്കും സർക്കാർ വിദ്യാലങ്ങളിൽ മേൽനോട്ടം ശരിയില്ലെങ്കിൽ അവിടുത്തെ അധ്യാപകർ നോക്കുവോളം കുട്ടികളെ ശ്രദ്ധിക്കുകയില്ല ചിലപ്പോഴൊക്കെ ചില സ്ഥലത്ത് അധ്യാപകർക്ക് കിട്ടുന്ന സാലറി പലപ്പോഴും കറക്ട് സമയത്ത് ലഭിക്കണമെന്നില്ല അതും ഒരു പക്ഷെ ഒരു കാരണമാകാം അതുകൊണ്ടുതന്നെ ഗ്രാമപ്രദേശത്തിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം കുറഞ്ഞു വരുകയാണ് അവിടുത്തെ വിദ്യാഭ്യാസ ഉന്നതത്തിൻ്റെ വിജയം തന്നെ കുറവാണ് ആ വിജയം കണ്ടിട്ടായിരിക്കും പലരും കുട്ടികളെ അവിടെ അയക്കുന്നത് ആ വിജയത്തിൻ്റെ ശതമാനം കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി രക്ഷിതാക്കൾ അവരെ അവിടെ വിടാൻ താല്പര്യപ്പെടുകയില്ല എല്ലാ മാസവും അല്ലെങ്കിൽ എപ്പോഴും അവിടെയൊരു മേലധികാരി പോയി നോക്കുകയും അവിടെ ഇല്ലാത്തതിൻ്റെ എല്ലാ സൗകര്യങ്ങളും കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഓരോ പ്രദേശത്തിലെ വിദ്യാലയങ്ങളും മെച്ചപ്പെടുകയുള്ളു